ഹലോ ഞാൻ വിളിക്കുന്നത് എൻ്റെ ഞാൻ കുറച്ചു സാധനങ്ങള് ഓർഡറെയ്തായിരുന്നു ഫൂഡ് ഐറ്റംസ് അപ്പോൾ അതിൻ്റെ ഡെലിവറി സ്ഥലം മാറ്റാനായിരുന്നു അപ്പോൾ ലൊക്കേഷൻ വേറെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇപ്പൊരു പതിനഞ്ച് കിലോ മീറ്റർ അപ്പുറത്തേക്കാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ അതിനു നിങ്ങള് എങ്ങനെയാണ് കൊണ്ട് വരികാന്നൊന്ന് പറയുവായിരുന്നെങ്കിൽ ഇതു മൊത്തത്തിൽ മാറ്റണം അതിനെന്താണ് ചെയ്യുക എന്നൊന്ന് പറഞ്ഞരുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാനായിരുന്നു അതെ അതന്നെ അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്ഥലം മാറണം വേറെ സ്ഥലത്തേക്കാണുള്ളത് അപ്പോൾ നേരത്തേയുള്ള സ്ഥലത്തേക്കല്ല വരേണ്ടത് അപ്പോൾ അങ്ങോട്ട് വരാനുള്ള ഇതെങ്ങനാണിതിനകത്തു ചെയ്ഞ്ചെയ്യാനുള്ളത് പറയുമായിരുന്നെങ്കിൽ അതെ ടൈമ് കുഴപ്പമില്ല കുറച്ചു ലേറ്റായാലും കുഴപ്പമില്ല ഇതൊന്നു മാറ്റായിരുന്നു അതിനാണിപ്പോബെന്ധപെട്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനാന്ന് വെച്ചാ ഞാൻ പിസ്സയും സാൻവിച്ചാണ് ഓർഡറെയ്തത് അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അല്ല വേണ്ടത് എനിക്ക് വേറെ സ്ഥലത്തേക്കായിരുന്നു അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് അത് ഇതുവരെയായിട്ട് എത്തീല്ല എനിക്ക് സ്ഥലം വേറ വേറെ സ്ഥലത്തേക്ക് എനിക്ക് പോണ്ടതായതുകൊണ്ട് ആണ് മാറ്റിയത്

അ അതിൻ്റെ ഇതിൽ തന്നെ എല്ലാം സെറ്റെയ്ത് ഓക്കേ ഓക്കേ അത് എങ്ങനെ എത്ര നേരം കൊണ്ട് എത്തൂന്ന് ഏകദേശം ഒന്ന് പറയുമായിരുന്നെങ്കിൽ അതു കണക്കാക്കി നിക്കായിരുന്നു അങ്ങനെ ബില്ല് അതൊക്കെ എത്രയാണ് വരിക അ അ ഓക്കേ അതെ അല്ല നിങ്ങൾ ഇവിടെ എത്തുമ്പോ പൈസ ചെയ്താൽ പോരെ ഡെലിവറി ചെയ്യുമ്പോൾ അ അ ഇരുപത് മിനിറ്റ്ല്ല അ അ ഓക്കേ ഇപ്പോൾ പെട്ടന്നൊന്ന് എത്തിക്കുമായിരുന്നു എങ്കിൽ ഉപകാരായേനെ പെട്ടന്ന് സ്ഥലം വേറൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വന്നോണ്ടാണ് ഇപ്പോ ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടിവന്നേ അ ഓക്കേ ഓക്കേ അ അന്നാ ഇതൊന്ന് പെട്ടന്നെത്തിക്കുമായിരുന്നുനെങ്കിൽ ഉപകാരായേനെ അ അ ഓക്കേ സർ താങ്ക് ക്യു